ചേട്ടാ ഇത് നമ്മൾ പോവുന്ന വഴിയല്ലല്ലോ ഇത് നമുക്ക് നേരിട്ട് പെരുമ്പാവൂർക്കല്ലേ പോവേണ്ടത് ഇത് വേറെ വഴിയാണല്ലോ പോവുന്നത് ചേട്ടൻ ഓ ആ മറ്റേ ഇവിടെ പാലത്തിൻ്റെ പ്രശ്നം അല്ലേ ആ അത് കുറേ നാളായല്ലോ തുടങ്ങിയിട്ട് അപ്പം പാലം പണി തുടങ്ങിയോ ഓ ആ ഇപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വളഞ്ഞൊക്കെ പോവേണ്ടി വരുന്നതുകൊണ്ട് അപ്പം എന്തോരം സമയമായിരിക്കും നമുക്ക് വേസ്റ്റ് ആവുന്നത് വെറുതെ ഇതിപ്പം എന്തോരം സമയം എടുക്കും എത്താൻ വേണ്ടിയിട്ട് ആ അര മണിക്കൂർ ഓ അപ്പം എനിക്കാണെങ്കിൽ വേഗം എത്തിയിട്ടും കുറച്ച് തിരക്കുണ്ടായിരുന്നു കൊച്ച് കുറച്ച് വേഗത്തിൽ പോ ചേട്ടാ ആ എനിക്കൊരു അത്യാവശ്യമായിട്ട് എൻ്റെ കോളേജിൽ എനിക്ക് പോയിട്ടൊരു മീറ്റിങ്ങ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിപ്പം പഠിച്ചിറങ്ങി എൻ്റെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ച് ഞങ്ങളിരുന്നോണ്ട് ആ ഞാൻ മറ്റേ നേരിട്ട് റോഡ് ആണെന്ന് വെച്ചിട്ടാണ് ഇത്രയും വൈകി ഇറങ്ങിയത് ഇപ്പം ബ്ലോക്ക് ആണെന്ന് അറിഞ്ഞെങ്കിൽ കുറച്ച് കൂടി നേരത്തേ എനിക്ക് ഇറങ്ങാമായിരുന്നു അപ്പം ഇപ്പം ചേട്ടൻ വളഞ്ഞ വഴി പോവുകയല്ലേ അപ്പം എത്ര പൈസ ആവും ഇത് നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്നും പൈസ കൂടില്ലേ ആ ഓക്കേ ചേട്ടൻ ഒന്ന് വേഗം എത്തിക്കാൻ നോക്ക് കേട്ടോ എന്നെ